ഇന്ത്യയിലെ ഗതാഗതസംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ മോശമാണ് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാറിൻ്റെയും സംസ്ഥാന സർക്കാറിൻ്റെയും അനാസ്ഥമൂലം ഇന്ത്യയിലെ ഗതാഗതം വളരെ മോശമാണ് നടുവൊടിയാതെ നമുക്ക് ഒരു വഴീയിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഗർഭിണിയെക്കൊണ്ട് ഇന്നത്തെ റോട്ടിലൂടെ ഒരു ഓട്ടോയിൽ കൊണ്ടുപോയാൽ ഉറപ്പായും ആ കുട്ടിയുടെ കാര്യം തീരുമാനമാവും അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തിൻ്റെ അവസ്ഥ സാധാരണയായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് റോഡ് ജലമാർഗം കരമാർഗം ഒക്കെയാണ് ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റോഡിലൂടെ കാറിലൂടെയും ബസ്സിലൂടെയും ബൈക്കിലൂടെയും സ്കൂട്ടറിലൂടെയും ഉന്തുവണ്ടിയിലൂടെയും കാളവണ്ടിയിലൂടെയും ആൾക്കാർ പോകുന്നു വെള്ളത്തിലൂടെ ബോട്ടിലൂടെയും പോവും ഇതാണ് യാത്ര ചെയ്യുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞ ആദ്യമേ പറഞ്ഞ ഈ റോഡുകൾ കുണ്ടുകളും കുഴികളും നിറഞ്ഞ ഈ റോട്ടിലൂടെ നടക്കുക എന്നു പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളത്തിലൂടെ പോവുമ്പോളുള്ള വെല്ലുവിളിയെന്നു പറയുന്നത് അപകടമുണ്ട വള്ളം മറിഞ്ഞ് മരിക്കാനുള്ള അപകടങ്ങളുണ്ടാകുന്നെന്ന് ഓരോ വർഷവും സർക്കാരിൽ നിന്ന് പൈസ മേടിച്ച് ഫണ്ടുണ്ടാക്കി റോഡുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് റോഡുണ്ടാക്കുന്നത് ഇതുപോലുള്ള റോഡുകളിൽ പാച്ച് വർക്കുകൾ ചെയ്ത് മറ തീർക്കുന്നു രണ്ട് മഴ പെയ്യുമ്പോൾ പിന്നേയും കുഴിയാകുന്നു ആനക്കുഴികളുണ്ടാകുന്നു ആനക്കുഴികളിൽ വീണ് ആൾക്കാർ മരിച്ച് പോവുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ സർക്കാർ കേന്ദ്രസർക്കാരും സംസ്ഥാന സർക്കാരും അവരുടെ അനാസ്ഥ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനാസ്ഥ മാറ്റിയാൽ എൻ്റെ രാജ്യത്തിലെ ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ മാറ്റാം പറ്റും ടാറ് ടാറ് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ടാറ് ചെയ്ത് നല്ല ഒരു ക്വാളിറ്റിയുള്ള ടാറിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഞാനീ പറഞ്ഞ ഗതാഗതമാർഗത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോളിവിടെ സംഭവിക്കുന്നതെന്തെന്ന് വെച്ചാൽ ചുമ്മാ പേരിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് റോഡ് ടാർ ചെയ്യും രണ്ട് മാസം കഴിയുമ്പോൾ മഴ പെയ്തും വെയിലടിച്ചും ടാറ് ഉരുകിപ്പോവുന്നു കുഴികളുണ്ടാകുന്നു ഇത് മെച്ചപ്പെടുത്തുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നല്ലൊരു ഒരൂ മുന്നേറ്റമുണ്ടാകണം റോഡുകളെല്ലാം മറ്റു രാജ്യങ്ങളെപ്പോലെ യൂറോപ്യൻ കൺട്രീസിലെ പോലെ ഗൾഫ് കൺട്രീസിലെ പോലെ സുന്ദരവും വെട്ടിത്തിളങ്ങുന്നതുമായ റോഡുകൾ പണിയണമെന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം